മലയാള ഭാഷ ഇപ്പോൾ നമുക്കീ ലോകത്തിലെവിടെ ചെന്നാലും മലയാളികളാരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും കാണുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതുറപ്പാണ് ലോകത്തെവിടെ ചെന്നാലും എവിടെയെങ്കിലും ഒരു മലയാളി കാണും കാരണം മലയാളികൾ അവരുടെ സംസ്കാര പാരമ്പര്യത്തിൽ ആഘോഷങ്ങളും ആദരിക്കാനും ആഘോഷിക്കാൻ ആഘോഷിക്കുന്നു പറഞ്ഞാൽ മലയാളത്തിൽ ഉള്ള അത്രയും ഒരു ആഘോഷം വേറെ എങ്ങുമില്ല ഓണം ക്രിസ്മസ് ന്യൂയർ സെലിബ്രേഷൻ ഇതൊക്കെ മലയാളികൾ ദീപാവലി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മറ്റ് രാജ്യങ്ങളിലുള്ള എന്തായാലും അത് കേരളത്തിലും മലയാളി മലയാള മലയാള മലയാള നാടുകളിലും മലയാള ആളുകളുടെ ഇടയിലും ഉണ്ട് അതുറപ്പാണ് ഏതൊരു മനുഷ്യനും ഒരു അവരുടെ ഭാഷ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അവർ അവർ അവർക്ക് ഒരു പ്രത്യേക ഭാഷയല്ല അവർ ജനിക്കുമ്പഴേ അവർക്ക് അവരുടെ അമ്മമാരിൽനിന്ന് കിട്ടുന്ന ഭാഷയാണവരെല്ലാവരും ഇങ്ങനെ ഉപയോഗിക്കുന്നത് അത് നമുക്ക് മനസ്സിലാവും ഇതേപോലെയക്കെത്തന്നെ എല്ലാവരും ഉപയോഗിക്കുകയും അതേപോലെ അത് വാർത്തെടുക്കുകയും മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട് അവരെന്ത് ഭാഷ മലയാളികൾക്ക് മാത്രമേ മനസ്സിലാവൂ മലയാള ഭാഷ മലയാള ഭാഷ ഇപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാവരും പഠിക്കണമെന്നില്ല കാരണം മലയാള ഭാഷ ഒരു സംസ്കാരിക പാരമ്പര്യ ഒരു സംസ്ഥാനത്ത് ഒരു കേരളത്തിലും കേരളമെന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് മാത്രമുള്ളൊരു ഭാഷയാണ് മലയാളം അല്ലാതെ ലോകം ഫുള്ളൊന്നും ഇല്ല മലയാള ഭാഷ അപ്പം മലയാള ഭാഷ നമ്മൾ നമ്മുടെ അക്ഷരങ്ങൾ കൊണ്ടും നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ എളുപ്പ ഭാഷയിൽ മനസ്സിലാവാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് മലയാള ഭാഷ